ആ ഓക്കെ എടുക്കാൻ വേണ്ടിയിട്ട് അല്ലേ

വേണ്ടി വരും ആ ഇവിടെ ആ ഇവിടെ സ്റ്റോ അൻപത് കിലോ അല്ലേ ഓക്കെ ഓക്കെ അങ്ങനെ ആണെങ്കിൽ ഇന്ന് ഇന്ന് എടുക്കാൻ പറ്റില്ല കാരണം ഇന്ന് ഇത്രയും സമയം ആയില്ലേ നാളെ രാവിലെ ഇന്ന് നാളെ എന്തായാലും വരുമെന്ന് ഉറപ്പല്ലേ ഓക്കെ അല്ലേ അങ്ങനെ ആണെങ്കിൽ നാളെ രാവിലെ വന്ന് കഴിഞ്ഞാൽ രാവിലെ അല്ല നാളെ വൈകുന്നേരം അവുമ്പോഴത്തേക്ക് വന്നാൽ മതി നാളെ നമ്മൾ കുറച്ച് പണിക്കാരെ ഒക്കെ വെച്ചിട്ട് ഇതെല്ലാം പറിച്ച് കളക്റ്റ് ചെയ്യണം ആ ഒരു ടൈം നമുക്ക് എന്തായാലും വേണ്ടി വരും

കളക്ട് ചെയ്തോളും ഓക്കെ ഓക്കെ അങ്ങനെ ആണെങ്കിൽ നാളെ വൈകുന്നേരം ആവുമ്പോൾ വന്നാൽ മതി നാളെ വൈകുന്നേരം വന്ന് കഴിഞ്ഞാൽ ഞങ്ങൾ സമയം ഒരു അഞ്ച് മണി ഒക്കെ ആവുമ്പോഴത്തേക്കും എത്തിക്കഴിഞ്ഞാൽ ഞങ്ങൾ ഇതെല്ലാം കളക്റ്റ് ചെയ്ത് കളക്റ്റ് ചെയ്ത് എല്ലാം റെഡി ആക്കി തരാം

ആ ഓക്കെ അഞ്ച് മണി അവുമ്പോഴെത്തേക്ക്

ഞങ്ങളടുത്ത് കൂടുതലും തക്കാളി ഉണ്ട് പിന്നെ വഴുതന എല്ലാ സാധനവും ഉണ്ട് നിങ്ങൾക്ക് ഇപ്പം ഏതാണോ വേണ്ടത് അതെല്ലാം നമ്മൾ ഇവിടെ പച്ചക്കറി കൃഷി ചെയ്യുന്നുണ്ട് കളക്റ്റ് ചെയ്ത് എടുക്കുമല്ലേ ഓക്കെ ഓക്കെ ആ എല്ലാ എല്ലാ സാധനവും ഉണ്ട് നമ്മൾ കളക്റ്റ് ചെയ്തോളാം കുഴപ്പം ഇല്ല നാളെ ഒരു അഞ്ച് മണി ആവുമ്പോഴത്തേക്ക് എത്തിയാൽ മതി ഓക്കെ എന്നാൽ